പുതിയ തലമുറയിലെ യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റഫോമിൽ ജോലി എന്ന രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് കാരണം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ അതിൽനിന്ന് നമ്മൾ ജോലി ചെയ്യുന്നതു പോലെ തന്നെ അതിൽനിന്ന് റെവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസെല്ലാം വ്ളോഗെല്ലാം ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ട് അതിൽനിന്ന് റെവന്യൂ കിട്ടുന്നൊരു സാഹചര്യം ഒക്കെയുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു റെവന്യൂ ഏൺ ചെയ്യാനുള്ളൊരിതാണ് പഴയ അത് അവർക്ക് പാഷനേറ്റായിട്ടുള്ള ഓരോ ഫീൽഡിൽ ഇത് അവർക്കിഷ്ടമുള്ള വ്ളോഗ് ടൈപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട് അതുവഴി നല്ലൊരു ഇൻകവും കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ് പുതിയ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ഇതുവഴി ഇൻകം കിട്ടുന്നുണ്ടല്ലോ